ഇന്ന് വയനാട് ജില്ലയിൽ ഒരുപാട് ഭവന ഓപ്ഷനുകൾ നിലവിലുണ്ട് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കോട്ടേഴ്സുകളുണ്ട് വീടുകളുണ്ട് അതുപോലെ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടു നില വീടിൻ്റെ മുഗൾ ഭാഗം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വി ഭവന ഓപ്ഷനുകൾ ഇന്ന് നിലവിലുണ്ട് ഈ ഓപ്ഷനുകൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഭ ഭവന വിപണിയെ ഏ സ്വാധിനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് ജോലി ഇല്ലാത്തവർക്കും കൂടി റിയൽ എസ്റ്റേറ്റ് എന്ന ജോലിയുണ്ട് അവർ എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്ഥലം ഒരു സ്ഥലം എടുത്ത് അത് കുറഞ്ഞ വിലയിൽ എടുത്ത് അത് കൂടുതൽ വിലക്ക് വിൽക്കുകയും അതുപോലെത്തന്നെ അവർ പിന്നെ മറ്റുള്ളവർക്ക് വീട് ഈ കോട്ടേഴ്സ് പോലെ കൊടുക്കാൻ വേണ്ടീട്ടു റെൻറ്റിനു കൊടുക്കാൻ വേണ്ടീട്ടു ഒരുപാട് കോട്ടേഴ്സുകളും അപ്പാർട്ട്മെൻറ്റുകളും പിന്നെ നൽകുന്നുണ്ട് അതുപോലെത്തന്നെ ഇതും അവരുടെ ഒരു വരുമാന മാർഗ്ഗം കൂടിയായിട്ടും കാണുന്നുണ്ട് ഇന്ന് ഒരു സാധാരണ ഒരു സാധാരണ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടീട്ടുള്ള വരുമാന മാർഗ്ഗമായിട്ടും ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്ത് നിന്നും ഇപ്പോൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതുപോലെ ജോലിക്ക് ജോലിക്കാവിശ്യത്തിനാണെങ്കിലും എല്ലാവരും മറ്റു ജില്ലകളിൽ നിന്നും ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഷോപ്പിൽ നിൽക്കാനാണെങ്കിലും അതുപോലെ പഠനത്തിന് വേണ്ടീട്ട് ഇപ്പോൾ ആറുമാസത്തെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് എന്നിങ്ങനെ ഒക്കെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരു അപ്പാർട്ട്മെൻറ്റായിട്ട് നൽകുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ബോ ബോയ്സിന് ഒരു അപാർട്ട്മെൻറ്റ് ഗേൾസിന് വേറെ ഒരു സ്ഥലത്ത് വേറെ ഒരു അപാർട്ട്മെൻറ്റ് ആയിട്ട് നൽകുന്നത് അതുപോലെത്തന്നെ ഇപ്പോൾ വീടില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറഞ്ഞ ഏ പലിശ അല്ല കുറഞ്ഞ റെൻറ്റിൽ വീട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു രണ്ട് മുറി രണ്ട് മുറി കോട്ടേഴ്സ് അതുപോലെ നല്ല ഹാള് അടുക്കള അതുപോലുള്ള ചെറിയ ഒരു കോട്ടേഴ്സ് ആണെങ്കിൽ അതിനൊരു പത്ത് പന്ത്രണ്ടായിരം രൂപ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ വീഴാനായിട്ടുള്ള ഒരു വീടുപോലെ ഉണ്ടാകും പിന്നെ ഓടിട്ട പഴയ പണ്ടത്തെ പോലത്തെ വീട് റെൻറ്റിനു നല്കുന്നതാണെങ്കിൽ അതിനൊരു അയ്യായിരം രൂപയ്ക്കാണ് നൽകുന്നത് ഇങ്ങനെ ഓരോ ഓരോ റൂമിനും അതിൻ്റെ സൗകര്യത്തിന് അനുസരിച്ച് അതിൻ്റെ അമൗണ്ട് റെൻറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും സൗകര്യം കൂടിയ വീട് വേണമെങ്കിൽ അതിനെ റെൻറ്റ് കൂടുതലായിട്ട് പതിനഞ്ചോ ഇരുപതോ അങ്ങനെ കൊടുക്കേണ്ടി വരും ഇരുപതിൻ്റെ ഉള്ളിൽ ആണ് കൂടുതലും കോട്ടേഴ്സും അഥവാ വീടുകളുമൊക്കെ കൊടുക്കുന്നത്